തീർച്ചയായിട്ടും ഒരു സംരംഭം തുടങ്ങാന് ഒരു സംരംഭം തുടങ്ങാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് അതിനുള്ള സ്ഥലങ്ങള് വേണം സ്ഥലങ്ങൾ വേണം നല്ല കെട്ടിടങ്ങൾ വേണം അതിനുള്ളതായ കാര്യങ്ങള് സൗകര്യങ്ങള് പിന്നെ ഒരു മൂലധനം ഒക്കെ നമുക്ക് ആവശ്യമാണ് പിന്നെ സം നമ്മള് എന്താണോ തുടങ്ങുന്നത് അതിനെ കുറച്ച് നല്ലൊരു ധാരണ നമുക്ക് വേണം പിന്നെ ഇപ്പോൾ പറഞ്ഞത് പോലെ മൂലധനം തീർച്ചയായിട്ടും നമ്മള് തുടങ്ങുന്ന സംരംഭം എന്ത് തന്നെയായാലും അതിന് നല്ലൊരു മൂലധനം പണം ആവശ്യമാണ് നമ്മള് ഒന്നും ആലോചിക്കാതെ എടുത്ത് തുട തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് പല സംരംഭങ്ങളും പരാജയപ്പെടാൻ കാരണം ഒന്ന് ഒന്നും നോക്കാതെ അധികം പേരും ലോൺ ഒക്കെ എടുത്ത് ബിസിനസിനെ കുറിച്ച് എന്താണ് ചെയ്യുന്നത് എന്ന് അറിയാതെ എടുത്ത് ആ മേഖലയിലേക്ക് ചാടി അവസാനം നല്ല കടങ്ങളൊക്കെ വരുത്തി വച്ച് അവസാനം ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് അത് കളഞ്ഞ് ജീവിതം തന്നെ തകർന്നു പോയ ഒരുപാട് ഒരുപാട് പേരുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞത് പോലെ ഒരു സംരഭം തുടങ്ങാൻ നമുക്ക് ആദ്യം വേണ്ടത് അതിൻ്റെതായ പിന്നെ നമുക്ക് സൗകര്യം വേണം സ്ഥലം വേണം പിന്നെ നമുക്ക് കെട്ടിടം വേണം സ്വന്തമായിട്ട് അല്ലെങ്കിൽ അതിനുള്ള നല്ലൊരു പിന്നെ സ്ഥാനം നല്ലൊരു സ്ഥലം എന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ തുടങ്ങുന്ന ജനവാസമായുള്ള മേഖലകളാണ് വേണം ഇങ്ങനെയുള്ളതായ കാര്യങ്ങള് പിന്നെ ഒരു ബിസിനസ് തുടങ്ങണമെങ്കില് വലിയ മൂലധനത്തിൻ്റെയല്ല നമുക്ക് എന്ത് ആണോ നമ്മൾ ഒരു പലചരക്കുകള് ഉദാഹരണമായിട്ട് ഒരു പലചരക്ക് കടയാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഒരു മൂലധനം ഒരൂ കടകളില് എന്തെല്ലാം സാധനം നമുക്ക് വേണോ ഒരു മൂലധനം ഉണ്ടെങ്കിലേ നമുക്ക് അത് വിജയിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റത്തുള്ളു അപ്പോൾ അതുകൊണ്ട് ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നല്ലൊരു മൂലധനം ആവശ്യമുണ്ട് ചെറിയൊരു മുറുക്കാൻ കടയാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിലും വലിയൊരു ഭീമമായ മൂലധനം നമുക്ക് ആവശ്യമില്ല മുറുക്കാൻ കടയ്ക്ക് വേണ്ടതായ ചെറിയ അതുപോലെ ഒരു ചായക്കടയാണ് നമ്മള് തുടങ്ങുന്നതെങ്കില് അതിൻ്റെതായ നിലയിലുള്ള ഒരു മൂലധനം നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മളെന്ത് സംരംഭമാണോ നമ്മള് തുടങ്ങാൻ ആലോചിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് അതിൻ്റെ വ്യാപ്തി അനുസരിച്ചായിരിക്കും അതിൻ്റെ മൂലധനം അപ്പം ഇപ്പോൾ പറഞ്ഞത് പോലെ ചെറിയ കാര്യങ്ങളാണ് തുടങ്ങുന്നതെങ്കിൽ അതിൻ്റെതായ മൂലധനം വലിയ പ്രയാസം ഒന്നുമില്ല എന്നാലും ഇപ്പോൾ നമ്മള് ഉദാഹരണമായിട്ട് മറ്റൊരു വിവിധ ഫാക്ടറികള് അതെന്താ അങ്ങനെ തുടങ്ങണമെങ്കില് അതിന് വലിയൊരു കാര്യങ്ങള് അതിൻ്റെ മെഷിൻസ്കളും മറ്റും പിന്നെ ഒക്കെ വാങ്ങിക്കാൻ എങ്കിൽ വാങ്ങിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി നല്ലൊരു പണം നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ എന്തോ തുടങ്ങണമെങ്കിലും ആ സംരംഭത്തിൻ്റെ അനുസരിച്ചുള്ളതായ് ഇപ്പോൾ നമുക്ക് ഒരു തീപ്പെട്ടി കമ്പനി തുടങ്ങാം അല്ലെങ്കിൽ പപ്പടം ഉണ്ടാക്കുന്നൊരു ചെറിയ ഒരു കമ്പനികളുണ്ട് പിന്നേ മറ്റേ ഫ്രൂട്സുകളൊക്കെ വിൽക്കുന്നതും പലചരക്ക് കട ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ ഏത് ബിസിനസ് ഏത് സംരംഭമാണോ നമ്മള് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ വ്യാപ്തി അനുസരിച്ചിട്ടുള്ള മൂലധനമാണ് നമുക്ക് ആവശ്യം അതാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്